തിരെഞ്ഞെടുപ്പ് വേളകളിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ചില സ്ഥലങ്ങളിൽ കയ്യേറ്റ ശ്രമങ്ങളും അതിനെ തുടർന്ന് വെടി വെയ്പ്പ് വരെ ഉണ്ടായിട്ടുള്ള കേന്ദ്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ ഇവിടെ സംബന്ധിച്ച് കേരളത്തിലെ സംബന്ധിച്ച് അത്രയും പ്രക്ഷോഭ ജനകമായ ഒരു അന്തരീക്ഷം തിരഞ്ഞെടുപ്പ് വേളകളിൽ ഉണ്ടാകാറില്ല ബൂത്ത് കയ്യേറ്റങ്ങളും അങ്ങിനെയുള്ള കാര്യങ്ങളും ഉണ്ടാകാറില്ല പക്ഷേ നമ്മൾ നേരിടുന്ന പ്രശ്നം ഒന്നാമത് പ്രശ്നമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എത്തി പറ്റാനുള്ള പ്രശ്നങ്ങളാണ് അതായത് യാത്രാ സൗകര്യങ്ങളിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഏറ്റവും വലിയ പ്രശ്നം യാത്ര ചെയ്യുന്നത് വോട്ട് ചെയ്യുന്നതിന് ബൂത്തിലേക്ക് എത്തുന്നതിനുള്ള സമയം ഇല്ലെങ്കിൽ സൗകര്യങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അത് ഒഫീഷ്യലായിട്ട് അംഗീകരിക്കുന്നില്ലെങ്കിലും അൺ ഒഫിഷ്യലായിട്ട് ഇല്ലെങ്കിൽ നിയമാനുസൃതമല്ലാതെ ചില യാത്രാ സൗകര്യങ്ങൾ ചില പാർട്ടികൾ ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ അത് അവരുടെ പാർട്ടിയല്ല അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്ക് വോട്ട് ഇല്ലയെന്ന് ഒരു തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ അവർ അതിനകത്ത് സംബന്ധിക്കുന്ന പ്രശ്നമില്ല പാർട്ടി വേറെ പാർട്ടിയാന്നെങ്കിലവർ യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തില്ല പിന്നീടുള്ളത് കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ഒരു വ്യക്തികൾ നേരിട്ട് എന്തെങ്കിലും യാത്രാ സൗകര്യം ഉണ്ടാക്കുകാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടി വരുന്നത് അത് ബൂത്തുകൾ വളരെ ദൂരെയാണെങ്കിൽ യാത്രാ സൗകര്യം ഉണ്ടാകുന്നത് വളരെ ക്ളേശകരമായിരിക്കും പിന്നീട് ഉള്ളത് നമ്മുടെ ബൂത്തിലെ നീണ്ട നിരയാണ് ഓരോരുത്തരെ കടത്തി വിടുവാൻ വേണ്ടി അവിടെ സംവിധാനങ്ങളുണ്ടെങ്കിലും ചില ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും ഒരു പാർട്ടികളെ മാത്രം അല്ലെങ്കിൽ വനിതകളുടെ ക്യൂവിൽ മാത്രം കയറ്റി വിടുന്നൊരു സംവിധാനം ഉണ്ടാകുന്നുണ്ട് വനിതകളെപ്പോൾ വന്നാലും അവരെ മാത്രം കയറ്റി വിടുന്നു വനിതകൾ തീരുന്നതിന് ശേഷം മാത്രം പുരുഷൻമാരെ കയറ്റി വിടുന്നൊരു സംവിധാനം ഒരു പ്രാവശ്യം ഓട്ടിനകത്ത് ഓട്ട് ചെയ്യാൻ ചെന്നപ്പോൾ സംഭവിച്ച സംഭവമാണ് വരുന്ന വരുന്ന വനിതകളെ കയറ്റി വിടുന്നു ഓട്ട് ചെയ്യുന്നു അവർ പോകുന്നു പുരുഷമാരുടെ ക്യൂ അങ്ങനെ തന്നെ നില നിൽക്കുന്നു അവരെ അങ്ങോട്ട് കയറ്റി വിടുന്നേ ഇല്ല ഏകദേശം മുക്കാൽ മണിക്കൂറോളം നിന്നിട്ടാണ് അങ്ങോട്ട് എത്താൻ പറ്റിയത് അതിനിടയിൽ അപ്പോൾ മുക്കാൽ മണിക്കൂറിൽ വന്ന ഉടനെ സ്ത്രീകൾ വോട്ട് ചെയ്ത് കടന്ന് പോകുകയും ചെയ്യുന്നു ബാക്കി പുരുഷന്മാരുടെ വാക്കുകൾക്ക് ഇല്ലെ പുരുഷന്മാരുടെ സമയത്തിനൊരു വിലയില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അന്ന് അവിടെ ആ ഉദ്യോഗസ്ഥൻമാർ കൈകൊണ്ടത് അതിനെതിരെ ശബ്ദം ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളതിലൊരു പിന്നെ പ്ലസ് പോയിൻറ്റായിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്നതാണ് പിന്നീട് യാത്ര എന്ന് പറയുമ്പോൾ തിരിച്ച് പോരുന്നതും വളരെ പ്രശ്നമാണ് തിരിച്ച് പോരുന്ന സമയത്ത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു സംവിധാനങ്ങളും ഇപ്പോൾ നിലവിലില്ല നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട് ബൂത്തുകൾ ദൂരം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ യാത്രാ ക്ളേശങ്ങൾ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുകളായി വന്ന് കൊണ്ടേ ഇരിക്കുന്നു